എൻ്റെ അച്ഛനും അമ്മയും ടെൻത് പാസ്ഡ് ആണ് അച്ഛൻ്റെ അച്ഛനും അമ്മയും ചോദിച്ച് പറഞ്ഞാൽ പണ്ട് കാലത്ത് അങ്ങനെ പഠിക്കാൻ ഒരു സൗകര്യം ഇല്ലാത്തോണ്ടു തന്നെ അച്ഛൻ്റെ അച്ഛൻ ടെൻത് പാസ്ഡ് ആയിരുന്നു അച്ഛൻ്റെ അമ്മ എട്ടാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ടായിരുന്നുളളൂ അമ്മയുടെ അച്ഛനാണെന്ന് പറഞ്ഞാൽ പ്ലസ്ടു വരെ പോയിട്ടുണ്ട് അച്ഛൻ്റെ അമ്മയുടെ അമ്മയാണെന്നു പറഞ്ഞാൽ സെവൻത്ത് വരെ പഠിച്ചിട്ടുള്ളൂ ഇവിടെ അച്ഛ എൻ്റെ അച്ഛനും അമ്മയും ആണെങ്കിലും അവർക്ക് വിദ്യാഭ്യാസം കുറവാണ് കാരണം പണ്ടെന്നു പറഞ്ഞാൽ ഇപ്പോഴത്തെ പോലുള്ളൊരു ഫെസിലിറ്റി ഉണ്ടായിരുന്നില്ല ഇപ്പോൾ കോളേജ് കുറേ കൂടുതലായി അതുപോലെ തന്നെ ബസ്സ് പോയി വരാനുള്ള ബസ്സ് അങ്ങനെ ആയി പിന്നെ നമുക്ക് യൂണിഫോം ബുക്ക്സ് പാത്രം ടിഫ്ഫിൻ പാത്രം അങ്ങനെയൊക്കെ സൗകര്യങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ പണ്ട് അങ്ങനെ ആയിരുന്നില്ല അപ്പോൾ അ എൻ്റെ അച്ഛനൊക്കെ പഠിക്കുമ്പോൾ ഒരു യൂണിഫോമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഡെയിലി അലക്കിയിട്ടൊക്കെ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അതുപോലെ തന്നെ അച്ഛൻ്റെ വീട്ടിൽ ജോയിൻറ്റ് ഫാമിലി ആയതുകൊണ്ട് തന്നെ എല്ലാവരുടെ കാര്യങ്ങളും നോക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അച്ചച്ചനും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ നോക്കാനൊന്നും പറ്റിയില്ല അതുകൊണ്ട് തന്നെ വളരെ കുറഞ്ഞ് കുറഞ്ഞൊരു വിദ്യാഭ്യാസം അവർക്ക് കിട്ടിയത് ഇപ്പോളെന്നു പറഞ്ഞാൽ ആ ഒരു എൻറ്റർലി ഡിഫറെൻറ്റ് ആയിയെന്ന് തന്നെ പറയാം സ്കൂളുകളാണെങ്കിലും പണ്ട് ഗ്രാമത്തിൽ ഉള്ളവരൊക്കെ സ്കൂളിലെത്തുമ്പോൾത്തന്നെ വൈകും ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ ഗ്രാമത്തിലുള്ളവർക്ക് പോയി വരാനുള്ള ബസ്സ് അതുപോലെ തന്നെ കൺസെഷൻ ഒക്കെ കിട്ടാൻ തുടങ്ങി ച്ഛ് പണ്ടൊന്നും അങ്ങനെ ആയിരുന്നില്ല ഇപ്പോൾ ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഈ ബസ്സ് ബസ്സ് കൂടാതെ കെ എസ് ആർ ടി സി ബസ്സ് പിന്നെ ഓട്ടോ അങ്ങനെയൊക്കെ ഉണ്ട് പക്ഷേ കോളേജിനെ ബേസ് ചെയ്തു പറയാണെന്ന് പറഞ്ഞാൽ പണ്ടത്തെ കോളേജ് എന്ന് പണ്ടത്തെ സ്കൂളുകൾ എങ്ങനെയാണെന്നു ചോദിച്ച് പറഞ്ഞാൽ ഓടൊക്കെ ഇട്ട സ്കൂൾ ആയിരിക്കും അപ്പോൾ മഴയൊക്കെ വന്നാൽ വെള്ളമൊക്കെ ഉള്ളിലേക്ക് വരുന്നതായിരിക്കും പിന്നെ പാറ്റ പല്ലി പിന്നെ കമ്പിളിപ്പുഴു അങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങൾ പിന്നെ എല്ലാവരും ഒരുമിച്ചിരിക്കുന്നതു കൊണ്ട് ചിലപ്പോൾ എല്ലാവർക്കും പനി വരാനുള്ള സാധ്യതകൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ പക്ഷേ അങ്ങനെയൊന്നുമില്ല ഇപ്പോൾ ഞാ കുറേ കൂടി നല്ലപോലെ മെച്ചപ്പെട്ടു എന്ന് തന്നെ പറയാം ഇപ്പോൾ സ്കൂളുകളാണെങ്കിലും കോളേജുകളാണെങ്കിലും അവർക്ക് വേണ്ട ഫെസിലിറ്റി ഉണ്ട് എന്നു പറഞ്ഞാൽ ബാത്റൂമിന്റെ ഇൻകേസ് ആണെങ്കിലും അതുപോലെ തന്നെ അവർക്ക് പോയി വരാൻ ബസ്സ് പിന്നെ എജ്യുക്കേഷൻ കൊടുക്കാൻ ടീച്ചേഴ്സ് സാറുമാർ അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു ഇപ്പോൾ ആ പണ്ടത്തെ വിദ്യാഭ്യാസത്തിനേക്കാളും കൂടുതൽ മെച്ചപ്പെട്ടു ഇപ്പോഴുള്ള വിദ്യാഭ്യാസം ആണെങ്കിലും സ്കൂളുകൾ ആണെങ്കിലും എല്ലാം ആണെങ്കിലും നല്ലപോലെ മെച്ചപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം